കുട്ടികൾ ഇന്നത്തെ കാലത്ത് കളിക്കുന്ന പുതിയ കളികൾ എന്തൊക്കെയാണ് എന്നതാണ് ചോദ്യം നമ്മൾ പണ്ട് നമ്മള് നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്തുള്ള കുട്ടികള് ചിലപ്പോൾ ടയർ ഉരുട്ടി കളിക്കുന്നത് നമ്മുടെ ഓർമയിൽ വരും അല്ലെങ്കിൽ കല്ല് വെച്ച് കളിക്കുന്നത് നമ്മുടെ ഓർമയിൽ വരും അല്ലെങ്കിൽ എങ്ങനെ ഒറ്റ കാലിൽ കുത്തി ചാടികളിക്കുന്നത് നമ്മുടെ ഓർമയിൽ വരാം അല്ലെങ്കിൽ ചോക്ക് ഉപയോഗിച്ച് എഴുതികളിക്കുന്ന ചില കാര്യങ്ങള് ഓർമ്മ വരാം പിന്നീട് അതവിടുന്ന് മാറി ഇപ്പം നമ്മള് നോക്കുകയാണെങ്കിൽ ബോർഡ് ഗെയിംസ് ഉണ്ട് അതായത് ചെസ്സ് പൊലുള്ള ഗെയ്മുകൾ ചെസ്സ് അല്ലെങ്കിൽ സ്നേക്ക് ആൻഡ് ലാഡ്ഡർ അതായത് പാമ്പും കോണ്ണിയും പിന്നേ മോനോപൊളി അങ്ങനത്തെ കുറച്ച് ബോർഡ് ഗെയിംസ് കളിക്കാനായിട്ട് കളിക്കുന്നത് കളിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ കാർഡ്സ് ഊണൊ കാർഡ്സ് അങ്ങന്നെ അതൊക്കെയാണ് ഇപ്പം കുട്ടികൾ കളിക്കുന്ന കളികള് പിന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നമ്മള് നോക്കുകയാണെങ്കിൽ കുടുതല് കുട്ടികളും ഓൺലൈൻ ഗെയിംസാണ് കളിക്കുന്നത് ഓൺലൈൻ പ്ലാട്ഫോർമിൽ കളിക്കുന്ന ഗെയിംസാണ് നമ്മ്ള് കുടുതലും കാണുക അതില് പല ടൈപ്പ് ഓഫ് പല കാറ്റഗറിയിൽ പെടുന്ന ഗെയിംസ് ഉണ്ട് കുറച്ച് വയലൻസ് ഒക്കെ ഇൻവോൾവ് ആകുന്ന ചില ഗെയിംസുകളുണ്ടാവും അല്ലെങ്കിൽ ബ്രെയിൻ ഗെയിംസ് ആയിട്ടുള്ള വേറെ കുറച്ച് ഗെയിംസുകളുണ്ട് മറ്റേ സൈഡില് നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ കുഞ്ഞ് കുട്ടികൾക്ക് ഒക്കെ വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഡ്രസ്സിംഗ് അപ്പ് ഗെയിംസോ അല്ലെങ്കിൽ കുക്കറി ഗെയിംസോ അങ്ങനെ പല ടൈപ്സ് ഓഫ് ഗെയിംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ബോർഡ് ഗെയിംസ് അങ്ങനെ ഓൺലൈൻ അല്ലാത്ത നമ്മള് ഗെയിംസ് നോക്കുകയാണെങ്കില് ഇപ്പം ഇത്പോലത്തെ സ്നേക്സ് ആൻഡ് ലാഡേർസ് ഉന്നോ കാർഡസ് ഇപ്പം ചെസ്സ് ഇതൊക്കെയാണ് ഇപ്പം കളി കുട്ടികള് കളിക്കുന്ന ഗെയിംസ് ഓൺലൈൻ പ്ലാറ്റ്ഫോർമിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പല ഗെയിംസും അവൈലബിൾ ആണ് രണ്ട് ടൈപ്പ് ഓഫ് ഗെയിംസും ഇപ്പോഴത്തെ കുട്ടികള് കളിക്കുന്നത് നമുക്ക് കാണാം